ഓ ഞങ്ങളുടെ ഇവിടെ ഉയർന്നു വരുന്ന പലതരം കലാരൂപങ്ങള് ഒക്കേ ഉണ്ട് അപ്പം കലാരൂപങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും മോഹിനിയാട്ടം ഓട്ടം തുള്ളല് പിന്നേ തെയ്യങ്ങള് തെയ്യത്തിന് കളിക്കുന്ന പലരീതിയിലുള്ള രൂപങ്ങള് കാര്യങ്ങളൊക്കേ നല്ല രീതിയിൽ ഉയർന്ന് വരുന്നുണ്ട് നമ്മള് നാട്ടും പുറത്ത് തന്നേ ഇഷ്ടംപോലെ അമ്പലങ്ങള് കാര്യങ്ങളൊക്കേ ഉണ്ട് അവിടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് പല രീതിയിലുള്ള വേഷം കേട്ടിട്ട് നല്ല രാസമായിട്ട് ഇങ്ങനെ ആടുക അങ്ങനത്തേ കാര്യങ്ങളൊക്കേ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞാല് പനവില്ലി ഭാഗം അപ്പം പാറ പിന്നെ തിരുന്നെല്ലി പിന്നെ അമ്പലവേല് അങ്ങനെ ഇഷ്ടം പോലെ സ്ഥലങ്ങള് അത് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരു ഇത് അപ്പം പാറ അവിടേ ഇഷ്ടംപോലെ ഇങ്ങനത്തേ കലാരൂപങ്ങള് അതായത് ഉളിയന്തറ അങ്ങനത്തേ കുറേ തെറകളും കാര്യങ്ങളുമൊക്കേ നടക്കുന്നുണ്ട് അവിടെയൊക്കേ നല്ല രീതിയിലുള്ള കലാരൂപങ്ങള് അതായത് നല്ല രീതിയിലുള്ള വേഷ പകർച്ച ചെയ്തിട്ട് വേണം അങ്ങനത്തേ കാര്യങ്ങൾ ഒക്കേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നല്ല രീതിയിലുള്ള പരമ്പരാഗത ആൾക്കാര് വേണം ഇങ്ങനത്തേ കാര്യങ്ങളൊക്കേ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നേ പല രീതിയിലുണ്ട് സമകാലീകമായിട്ടും എല്ലാ കാര്യങ്ങളൊക്കേ ആയിട്ടുള്ള ചെയ്യുന്ന പല രീതിയിലുള്ള ആൾക്കാരുണ്ട്